എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്ന്ന് പറഞ്ഞാൽ കെറ്റിലാണ് കെറ്റിൽന്ന്ട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു ഇപ്പോൾ സുലഭമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ എനിക്ക് ഞാൻ ഒരു സ്കൂട്ടി വാങ്ങിയപ്പോഴാണ് എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഈ കെറ്റിൽന്ന് പറഞ്ഞ സാധനം ആ അപ്പോൾ എന്റെ വീട്ടിൽ എന്താ പറയാ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കാപ്പിയും ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് തീയോക്കെ കത്തിച്ചിട്ട് വേണം ഒരു കാപ്പി ഉണ്ടാക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പഴയ വീടൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം തീയ് അതായത് വിറക് തീ വിറക് തീയാണ് ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് കത്തിക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കെട്ടുപ്പോയിക്കഴിഞ്ഞാൽ ഈ കുംമ്പം വെച്ചിട്ട് ഊതിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വീണ്ടും കത്തിക്കാനൊക്കെ പറ്റു ഉളളു പിന്നേ ഇപ്പൊഴൊക്കെയാണ് ആ ഇൻഡക്ഷൻ കുക്കറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വന്നത് പക്ഷേ ഇൻഡക്ഷൻ കുക്കറിനൊക്കെ ഭയങ്കരമായിട്ട് കറന്റ് ചാർജ്ജ് കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും കെറ്റിലാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് അതാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള കറന്റ് ചാർജ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാപ്പി ഉണ്ടാക്കാനും എല്ലാകാര്യങ്ങൾക്കും എളുപ്പം ഈ കെറ്റിലാണ്